വാർത്തകൾ വായിക്കും എന്നു പറയുമ്പോൾ രാവിലെ പത്രം അധികം മുമ്പിലത്തെ ആ പേജ് മാത്രം വായിക്കും പിന്നെ ഏതെങ്കിലും നല്ല ന്യൂസ് ഉണ്ടെങ്കിൽ അതു കേൾക്കും പിന്നെ വിദ്യാഭ്യാസപരമായ വല്ല വാർത്തകൾ വായിക്കും അങ്ങനെ വായിക്കാറുള്ളു പിന്നെ നമ്മൾ കാണാൻ ഇഷ്ടപെടുന്ന വാർത്തകൾ എന്നു പറയുമ്പോൾ അധികം കുറ്റകൃത്യങ്ങൾ കേൾക്കാൻ വളരെ കാണാനും വളരെ ഇഷ്ടമാണ് പിന്നെ വിനോദം അങ്ങനെ കായികം കാണും പക്ഷെ അത്രയ്ക്ക് ഒരു ഇഷ്ടമല്ല പിന്നെ വിദ്യാഭ്യാസപരമായ വല്ല വാർത്തകൾ ഉണ്ടെങ്കിൽ അതും കേൾക്കും നമുക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉള്ള വാർത്തകളായിരിക്കും എല്ലാരും കേൾക്കുന്നത് ഓരോരുത്തർക്കും ഓരോന്നിലാണ് ഇൻട്രസ്റ്റ് എനിക്ക് കേൾക്കാൻ അധികം താല്പര്യമുള്ളത് ഈ നമ്മൾ കുറ്റകൃത്യങ്ങൾ അങ്ങനെ ഉള്ള അങ്ങനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വാർത്തകളാണ് കൂടുതൽ ഞാൻ കേൾക്കാറുള്ളത് പിന്നെ അത്യാവശ്യം വിദ്യാഭ്യാസ മായി ബന്ധപ്പെട്ടുള്ള വാർത്തകളും അധികം കേൾക്കാറുണ്ട് പിന്നെ കൂടുതലും വിനോധമാണ് നമ്മൾ എല്ലാവരും കാണുന്നതും കേൾക്കുന്നതുമെല്ലാം പിന്നെ വല്ല ചില സമയങ്ങളിൽ കായികം കേൾക്കാറുണ്ട് കായികം നമ്മുടെ ഒരു ദേശീയ ഇതാണല്ലോ അതുകൊണ്ട് പിന്നെ എന്നിട്ട് കൂടുതൽ വാർത്തകൾ നമ്മൾ മൊബൈൽ ഫോണിലും ടെലിവിഷൻ അതിലൂടെയുമാണ് നമ്മൾ അധികം അറിയുന്നത് വായന പേപ്പർ വായന കൂടു കുറവാണ് എന്നാലും അത്യാവശ്യം സാഹചര്യങ്ങളിൽ വായിക്കും സമയം കിട്ടുമ്പോളൊക്കെ വായിക്കുകയും ചെയ്യാറുണ്ട് പിന്നെ